ആ ഏച്ചി പറഞ്ഞോ ആ പറഞ്ഞോ പറഞ്ഞോ ആ ആ ആ പറഞ്ഞോ അ ചേച്ചിക്ക് എവിടെയാണ് പോവേണ്ടത് നെയ്യാർ ഡാമിലാണോ പോവേണ്ടത് അതോ ഫോറസ്റ്റിലാണോ പോവേണ്ടത് ചേച്ചി എന്താണ് ഉദ്ദേശിക്കുന്നത് അതെ അതെ ആ ഡാം ഡാം ഡാമിലാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ആദ്യം വന്ന് ഡാം കാണാം ഡാം കണ്ടതിന് ശേഷം അപ്പുറത്ത് ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട് ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെ പോയി അവിടുന്ന് ബോട്ടിങ്ങ് സൗകര്യമുണ്ട് പിന്നെ ഒരു ലയൺ സഫാരി പാർക്ക് ഉണ്ട് പിന്നെ ഒരു ക്രൊക്കഡൈൽ പാർക്ക് ഉണ്ട് ഇതൊക്കെ കാണാൻ പറ്റും അത് കഴിഞ്ഞ് വന്നാൽ അത് കഴിഞ്ഞാൽ ബോട്ടിങ്ങിൽ ഗൈഡ് ഇല്ല ബോട്ടിങ്ങിൽ പോവാൻ ഗൈഡ് ഇല്ല ചേച്ചി ബോട്ടിങ്ങിൽ സ്റ്റാഫുകൾ രണ്ട് ജീവനക്കാർ ഉണ്ടാവും പിന്നെ അതിന് അതിന് ടൈം അനുസരിച്ചാണ് ചാർജ് അതിപ്പോൾ ഇരുപത് മിനിറ്റ് ഉണ്ട് മുപ്പത് മിനിറ്റ് ഉണ്ട് അങ്ങനെ പിന്നെ അത് കൂടാതെ നമ്മൾ ഫോറസ്റ്റിനകത്ത് ഒന്ന് രണ്ട് എന്താണ് പുറംനാടുകളിലെ റിസോർട്ട് പോലെ ഫോറസ്റ്റിനകത്ത് ഒന്ന് രണ്ട് നമുക്ക് തങ്ങി അവിടുന്ന് ആ ഫ് ഫോറസ്റ്റ് സൗന്ദര്യം ആസ്വദിക്കാനുള്ള രണ്ട് കെട്ടിടങ്ങളുണ്ട് അവിടെ പോയി നമ്മൾ താമസിച്ച് വരുകയാണെങ്കിൽ അവിടെ പോവാനായിട്ട് ഗൈഡ് ഉണ്ടാകും സഫാരി പാർക്കിലും നമുക്ക് ബോട്ടിൽ തന്നെയാണ് പോവേണ്ടത് അത് അവിടുന്ന് ഫോറസ്റ്റ് ഓഫീസിൽ നിന്നുള്ള ബോട്ടിൽ അവർ അവിടെ കൊണ്ട് പോവും തിരിച്ച് അവർ തന്നെ കൊണ്ടുവരികയും ചെയ്യും ഇല്ല ഇല്ല പേടിക്കേണ്ട അല്ല നമ്മുടെ ലയൺ സഫാരി പാർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ബോട്ടിൽ ഒന്ന് ബോട്ടിങ്ങ് ഭാഗം ഇത് ലയണിനെ കാണാൻ പറ്റും അതായത് ബോട്ടിങ്ങിൻറെ അവിടെ ചെന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ അവിടെ ഒരു ബസ് ഉണ്ട് ആ ബസ്സിനകത്ത് കയറി നമ്മൾ ലയണിന് ചുറ്റും നടന്ന് ആ ആ ആ ആ ഒരു പത്ത് ഹെക്ടർ വലുപ്പമുള്ള ഒരു എന്താണ് പറയുന്ന മതിലോട് കൂടിയ ചുറ്റുമതിലോട് കൂടിയ ഒരു സ്ഥലമാണ് അതിനകത്ത് നമ്മൾ സിംഹം പുറത്തും നമ്മൾ അകത്തും ആണ് അതായത് സിംഹം എന്നുവെച്ചാൽ അതിനുള്ളിൽ ഇറങ്ങി നടക്കുന്നു നമ്മൾ ഈ ബസ്സിനകത്ത് ഇരുന്നുകൊണ്ട് നമ്മൾ ഇതിനെ കണ്ട് നടക്കുന്നു ബാക്കി ഉള്ള ഇടത്തൊക്കെ നമുക്ക് പോവണമെങ്കിൽ ബാക്കി ഇപ്പോൾ കാഴ്ചബംഗ്ലാവിലും മറ്റ് സ്ഥലങ്ങളോ ചെല്ലുവാണെങ്കിൽ നമ്മൾ സിം ആ നമ്മൾ പുറത്ത് നിൽക്കുന്നു അകത്ത് കുഴിക്കകത്തോ അല്ലെങ്കിൽ കൂട്ടിനകത്തോ സിംഹത്തെ കാണുന്നു ആ അതുപോലെ സംഭവിച്ചിട്ടുണ്ട് അത് നമ്മുടെ ഒക്കെ കെയർലെസ്സ് കൊണ്ട് ഉണ്ടാവുന്ന അപകടങ്ങളേ ഉള്ളൂ അല്ലാണ്ട് വേറെ അങ്ങനെ പ്രശ്നം ഒന്നുമില്ല സേഫ് ആണ്

ഉണ്ട് ഉണ്ട് ഉണ്ട് അപ്പോൾ അപ്പുറ കുറച്ചുകൂടെ അപ്പുറത്ത് പോയാൽ ഒരു ഡിയർ പാർക്ക് ഉണ്ട് പിന്നെ ആന സവാരി കേന്ദ്രമുണ്ട് പിന്നെ ഒരു ദിവസം കാണാൻ തക്കതായ കാര്യങ്ങളെല്ലാമുണ്ട് ഓക്കെ താങ്ക് യു